പന്ത്രണ്ട് ഒന്ന് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാ റ് ഒന്ന് ഒന്ന് രണ്ടായിരം പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി നാല് പത്തൊമ്പത് എട്ട് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ് ഇരുപത്തിയഞ്ച് അഞ്ച് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് പതിനെട്ട് എട്ട് രണ്ടായിരം